ആ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു നമ്മുടെ വീടിൻ്റെ അവിടെ ഔട്ട് ഹൗസും കൂടെ പണിയാനൊരു ഔട്ട് ഹൗസിലേക്കൊരു ഹോളും കൂടെ പണിയണ്ടത് ഉണ്ടേ അപ്പോൾ അതിന് എത്ര രൂപ വരും എസ്റ്റിമേറ്റ് എത്ര വരും എന്നാൽ എങ്ങനെ ആ ബെറ്റ് ഓ ഓ എല്ലാ വർക്കും അതിനകത്ത് തീരോ ഫ്ലോറിംഗും ആ അപ്പോൾ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തേരും ആ അപ്പോൾ നിങ്ങളത് പറ്റുന്ന ഒരു ഏറ്റവും അടുത്ത ദിവസം ഒന്ന് വന്ന് അതിൻ്റെ ഒരളവൊക്കെ ഒന്ന് എടുത്ത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തേരും ആ ഹാളിന് ഒരു പന്ത്രണ്ട് പതിനഞ്ച് അടിയൊക്കെ നീളം ആ ഒരു ആ വീതി ഒരു എട്ടടിയോളം വീതിയൊക്കെ വരും നല്ലൊരു ഹോള് വേണം രണ്ടാഴ്ച കൊണ്ട് തീർത്തേരും ഇല്ലേ ആ അപ്പം ഒരു ഹാള് പണിയാനോ ആ ഏതായാലും ശരി നിങ്ങൾ വരൂ ആ ഹാ ആ ആ ആ ആ ഹാ ഹാ ആ ഓക്കെ ആ അപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം ഏറ്റവും അടുത്ത ദിവസം ഒന്ന് വന്ന് നോക്കി അളന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാനായിട്ട് വരണം കേട്ടോ ശരി ആ ഓക്കെ ഓക്കെ